ഞാൻ മേയ്ക്കപ്പ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഒരു വട്ടം ഇങ്ങനെ ഓൺലൈനിൽ ഞങ്ങൾ നോക്കിയ സമയത്ത് തന്നെ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ ഓൺലൈൻ നോക്കിയപ്പോൾ ഒരു കോംബോ ഓഫർ കണ്ടു അതൊരു നല്ല കമ്പനിയുടെ ആയിരുന്നു മെയ്ക്കപ്പ് ഐറ്റംസ് അതായത് അതിനകത്ത് കോംപാക്ട് പൗഡർ ലിപ്സ്റ്റിക്ക് ബ്ലഷ് ഫൗണ്ടേഷൻ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇത്രയും ഒരു കോംബോ ഓഫറിൽ കിട്ടുമ്പോൾ വാങ്ങിക്കുമല്ലോ അപ്പം ഞാനങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ച ടൈമിൽ ഓക്കേ ഞങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്തു ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം തന്നെ യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ യൂസ് ചെയ്യാത്ത കമ്പനിയാണത് പക്ഷെ എൻ്റെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര അവർക്ക് പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു പക്ഷെ അപ്പോൾ ഞാൻ അതുകൊണ്ട് വാങ്ങിച്ചതാണ് പക്ഷെ ഞാൻ വാങ്ങിച്ച ടൈമിൽ ഞാൻ യൂസ് ചെയ്തപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമല്ലോ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കുന്നു നമ്മുടെ സ്കിന്നിനോട് മുഖത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാ കാരണം ബ്ലെൻഡ് ആവണില്ല അത് നമ്മൾ എത്ര ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്താൻ ശ്രമിച്ചാലും ബ്ലെൻഡ് ആവണില്ല അപ്പോൾ തന്നെ എനിക്ക് ഒരുമാതിരി ആയി കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തു വാങ്ങിച്ചിട്ട് സാധനം നേരെ വർക്കാവണില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ പോലെ ആവില്ലേ അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത ടൈമിൽ തന്നെ മോയ്സ്ചറൈസർ തേച്ചിട്ടാണ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തത് യൂസ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മുഖത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മുഖത്ത് ഇങ്ങനെ കുരുക്കൾ ഒന്നും ഉണ്ടായി പിമ്പിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വെറുതെ ക്യാഷ്വൽ ആയിട്ട് യൂസ് ചെയ്തു നോക്കിയതാണ് ട്രൈ ചെയ്തതാണ് എന്തായാലും അപ്പോൾ ട്രൈ ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് മുഖത്ത് ഒട്ടിപ്പിടിക്കുന്നു എത്ര ബ്ലെൻഡ് ചെയ്തിട്ടും ബ്ലെൻഡ് ആവണില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു എന്നാൽ ശരി കഴുകിക്കളയാമെന്ന് വിചാരിച്ചിട്ട് കഴുകി കളയാൻ ഓയിലിട്ടിട്ടും എന്ത് ഇട്ടിട്ടും അത് പോണില്ല അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കുറച്ച് സ്റ്റെയിൻസൊക്കെ ബാക്കി നിൽക്കുകയാ എത്രയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് അത് അതിൻ്റെ ഫൗണ്ടേഷൻ തന്നെ കഴുകി കളഞ്ഞത് അപ്പോഴത്തേനും ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കേ ഈ സാധനം ശരിയല്ല അപ്പം ഞാനെന്താ വെച്ചാൽ ബാക്കിയുള്ളത് യൂസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇത്രയും പൈസ കൊടുത്തത് വാങ്ങിച്ചതു കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ ബ്ലഷ് നോക്കി ബ്ലഷ് വെച്ച സമയത്ത് തന്നെ നമ്മുടെ മുഖത്ത് കവിളിൽ ബ്ലഷ് പുരട്ടിയപ്പോൾ തന്നെ ഈ സെയിം പ്രോബ്ലം തന്നെ ബ്ലഷ് ബ്ലഷീന്ന് ബ്ലഷ് പുറത്തേക്കു വരുന്നില്ല നമ്മൾ കട്ട കട്ടയായിട്ടാണ് ബ്ലഷൊക്കെ വരുന്നത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും പറ്റുന്നില്ല മുഖത്തിങ്ങനെ റെഡ് കളർ ഇങ്ങനെ കറക്റ്റ് ലൈൻ ആയിട്ട് നിൽക്കുകയാ എത്ര ബ്ലെൻഡ് ചെയ്തിട്ടും ബ്ലെൻഡ് ആവുന്നില്ല ഒരുമാതിരി ജോക്കറിനെ പോലെയൊക്കെ ഇങ്ങനെ ബ്ലെ രണ്ടു കവിളത്തും രണ്ട് ഉണ്ട പോലെ ബ്ലഷ് ഉണ്ടായിരുന്നു അപ്പം അതിനെക്കാൾ വല്യ ഭാഗ്യത്തിന് ഞങ്ങൾ സാധാ പോലെ സാധാ ടൈമിലാണ് യൂസ് ചെയ്തത് കല്യാണ ഫംഗ്ഷൻസൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വെറുതെ ട്രൈ നമ്മൾ എപ്പോഴും മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ക്യാഷ്വൽ ആയിട്ട് ഇട്ടിരിക്കുന്ന ദിവസം ട്രൈ ചെയ്യണമല്ലോ അങ്ങനെ അതൊന്നു ട്രൈ ചെയ്തു നോക്കിയതാണ് അത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ പിന്നെ അതിനു ശേഷം ബ്ലഷ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് എങ്കിലും നന്നാവുമെന്ന് വിചാരിച്ചു അപ്പം ഒരു മേറ്റ് ആയിരുന്നു മേറ്റ് ഒരു ന്യൂഡ് കളർ ലിപ്സ്റ്റിക് ആയിരുന്നു അപ്പം ലിപ്സ്റ്റിക് ഉപയോഗിച്ചു അപ്പം ലിപ്സ്റ്റിക് എന്തായാലും ലിപ് ബാം യൂസ് ചെയ്തു ലിപ് ബാം യൂസ് ചെയ്ത് ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ ലിപ്സ്റ്റിക്ക് പറ്റിപ്പിടിച്ചു പറ്റി പിടിച്ചിട്ട് ഇത് ഒരു കളർ വരുന്നില്ല വേറെ ഏതോ കളർ നമ്മൾക്കു വാങ്ങിച്ച കളർ അല്ല പുറത്ത് കാണുന്നത് ആ കളർ ആണെങ്കിൽ നമ്മളുടെ ലിപ്സില് കറക്റ്റ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാ എത്ര തുടച്ചു കളഞ്ഞിട്ടും പോണൂല്ല അത് ബ്ലെൻഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ആവുന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് സ്റ്റിക്കായി നിൽക്കണ പോലെ അതൊക്കെ മായ്ച്ചു കളയാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അങ്ങനെ കുറെ പ്രൊഡക്ട്സ് ആദ്യത്തെ നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങൾ ഇത് ഇതിൻ്റെ ആഫ്റ്റർ എഫ്ഫക്റ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ മുഖത്തൊക്കെ നിറച്ച് പിംപിൾസും കുറേ റെഡ്ഡിഷ് ആയിട്ടുള്ള കുറേ മാർക്സൊക്കെ വന്നായിരുന്നു പിന്നെ ആ ബ്ലഷ് യൂസ് ചെയ്തത് കൊണ്ടാണോ എന്ന് അറിയില്ല ബ്ലെഷ് ഒക്കെ യൂസ് ചെയ്ത ഭാഗത്ത് ഭയങ്കരമായിട്ട് ഒരു വൈറ്റ് കളർ പാട് ഒരു വൈറ്റ് കളർ പാട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആ വൈറ്റ് കളർ പാട് പോകാൻ ഇപ്പോൾ ഞാൻ മാറാൻ വേണ്ടി സ്കിൻ ഡോക്ടറെ കാണിക്കുകയാ ചെയ്തത് പിന്നെ പിന്നെ മുഖം നിറച്ച് പിമ്പിൾസായി എല്ലാ സ്ഥലത്തും പിമ്പിൾസായി എത്ര ക്ലിയർ സ്കിന്ന് ആയിരുന്നു അറിയുമോ ഞാൻ എന്നിട്ട് അവരുടെ പ്രൊഡക്ടിന് ബാഡ് റിവ്യൂ തന്നെ റിവ്യൂ കൊടുത്തു കാരണം നമ്മളുടെ ഫേസ് ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഭംഗിയിൽ വെക്കണ ഒരു ഐറ്റം നമ്മളാ ഫെയ്സ് ഇങ്ങനെ ഇത്രയും വിയേഡ് ആക്കി കഴിഞ്ഞാൽ മേക്കപ്പ് ഐറ്റംസ് വേറെ ആൾക്കാർക്ക് എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതവരുടെ എത്ര എഫക്ട് ചെയ്യും അവരുടെ സ്കിന്നിന് അപ്പോൾ പിന്നെ നമ്മുടെ മുഖത്ത് ഭയങ്കരമായിട്ട് ഞാനും എൻറെ കസിനും കൂടിയാണ് ഉപയോഗിച്ചത് പിന്നെ അവളുടെ മുഖത്തും എൻ്റെ മുഖത്തും ഞങ്ങൾ വേറെ വേറെ സ്കിൻ ടോൺസ് ആണ് വേറെ സ്കിൻ ടൈപ്പ് ആണ് ഓയിലി എൻ്റെ ഓയിലി ആണെങ്കിൽ അവളുടെ സാധാ ഡ്രൈ സ്കിന്നാണ് അപ്പം ഞങ്ങൾ വേറെ വേറെ സ്കിൻ ടോണിൽ ആണ് ട്രൈ ചെയ്തു നോക്കിയത് ഏതേലും സ്കിൻ ടോണിൽ വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു എവിടെ എവിടെ ഒരു സ്കിന്നിൽ വർക്ക് ചെയ്തില്ല കാരണം രണ്ടിലും ഇതേ സെയിം അവസ്ഥ തന്നെയാ ഉണ്ടായത് ഞങ്ങൾക്ക് സെയിം സെയിം അവസ്ഥ എൻ്റെതിൽ ഫൗണ്ടേഷൻ പറ്റിപ്പിടിച്ച് അവളുടെതിൽ ബ്ലഷ് പറ്റിപ്പിടിക്കും അങ്ങനത്തെ അവസ്ഥ എന്നിട്ട് രണ്ടുപേരുടെയും മുഖത്ത് നിറച്ച് കുരുക്കളായി വൈറ്റ് മാർക്ക്സ് ആയി റെഡ്ഡിഷ് മാർക്ക്സ് ആയി എന്നിട്ട് അത് മാറാൻ വേണ്ടി കുറെ കാലം ഞങ്ങൾ സ്കിൻ ഡോക്ടറിന്റെ അടുത്ത് ആയിരുന്നു എന്നിട്ട് ഇപ്പോഴാണ് മാറിയത് അതിനുശേഷം പിന്നെ ഞങ്ങൾ ട്രൈ ട്രൈകൾ ചെയ്യാനും ട്രൈ ചെയ്തു നോക്കാനും ഇങ്ങനെ ലോക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇങ്ങനെ വാങ്ങിക്കാറില്ല ഹൈ ബ്രാൻഡഡ് ആയിട്ട് നമ്മളുടെ സ്കിൻ ടോണിന് പറ്റിയത് ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ ഇപ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്യാറ് കാരണം നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതില് മെയിൻ ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതിൽ പ്രശ്നം ഈ ഫൗണ്ടേഷൻ ആണ് ഫൗണ്ടേഷൻ മുഖം അറിയാണ്ട് നമ്മൾ എല്ലായിടത്തും പുരട്ടുന്നതുപോലെ എല്ലായിടത്തും ജസ്റ്റ് ഡോട്ട് ഡോട്ട് പുരട്ടിവച്ചു അപ്പം എന്ത് ചെയ്തു ബ്ലെൻഡ് ആവുന്നില്ല അവിടെയിങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയും ചെയ്തു മായിച്ചിട്ട് മായുകയൊന്നുമില്ല മുഖം നിറച്ച് പാണ്ട് പോലെയായി അതിനുശേഷം ആണ് ബ്ലഷ് വാങ്ങിച്ചത് ബ്ലഷ് വാങ്ങിച്ചപ്പഴും സെയിം ബ്ലഷ് യൂസ് ചെയ്തപ്പോഴും സെയിം അവസ്ഥ തന്നെയുണ്ടായി ഇത്രയൊക്കെയായ സമയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമാതിരിയായി കാരണം ഇത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചട്ട് കോംബോ ഓഫർ ആണെങ്കിൽ കൂടിയും എന്നാലും പൈസ ഉണ്ടായിരുന്നില്ല എല്ലാത്തിനും കൂടി എന്നിട്ട് ഒരുമാതിരി ഐ ലൈനർ ഉണ്ടായിരുന്നു ഐ ലൈനർ എന്ന് പറയുമ്പോൾ പെൻസിൽ ഐ ലൈനർ ആണ് ആ കമ്പനിയുടെ തന്നെ പെൻസിൽ ഐ ലൈനർ ആണ് അത് ഉപയോഗിച്ച സമയത്ത് തന്നെ നമ്മുടെ കണ്ണിലിങ്ങനെ പുരട്ടി കണ്ണില് പുരട്ടിയ സമയത്ത് ഇങ്ങനെ നമ്മൾ അതിൽ മുന അതിൽ പെന്സിലിന്റെ ടിപ്പ് ഉണ്ടാകുമല്ലോ അത് ഒടിഞ്ഞു ഒടിഞ്ഞു പിന്നെ പിന്നെ നമ്മൾ കട്ടർ കൊണ്ട് കട്ട് ചെയ്തു പിന്നേം ഒടിഞ്ഞു ഇങ്ങനെ പെൻസിന്റെ മുന ഇങ്ങനെ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് വെറും യൂസ്ലെസ് ആയി കാരണം നമുക്കത് യൂസ് ചെയ്യാനേ പറ്റിയില്ല ഫുള്ളും ഇങ്ങനെ ഒടിഞ്ഞു കൊണ്ട് ഒടിഞ്ഞു ഒടിഞ്ഞു ഒടിഞ്ഞു പോയി പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് കോംബോ ഓഫറിൽ ഉണ്ടായിരുന്നത് ആ മൊത്തത്തിൽ ആ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച ഫുൾ പ്രോഡക്ട്സും ഡാമേജ്ഡ് ആയിരുന്നു നമ്മുടെ സ്കിൻ ടോണിന് പറ്റിയതല്ല ഒരു സ്കിൻ ടോൺ കാരണം ഞങ്ങൾ വേറെ വേറെ ഒരു സ്കിൻ ടോണിനും ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കി ഒരു സ്കിന്നിനും പറ്റാത്ത മേക്കപ്പ് ഐറ്റം ആയിരുന്നു അത് അതിനുശേഷം ഞാൻ പിന്നെ കൂടുതൽ മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യണത് നിർത്തി കാരണം ഭയങ്കര ഹൈ ബ്രാൻഡഡ് ആയിട്ടുള്ള നൈക്ക മേബിലിൻ അവരുടെയൊക്കെ മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ കാരണം ഒരു വട്ടം നമുക്ക് അബദ്ധം പറ്റിയതല്ലേ പിന്നെ ഇങ്ങനത്തെ ഓഫറുകൾ കണ്ട് വാങ്ങിക്കാറുള്ളതൊക്കെ നിർത്തി കാരണം നമ്മൾ പിന്നെ എന്തെങ്കിലും പറ്റീട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ആ കമ്പനിക്ക് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറേ പേർ ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ നെഗറ്റീവ് റിവ്യൂ കൊടുത്തു ഇപ്പം ആ കമ്പനി സെയിൽ ചെയ്യണില്ല തോന്നുന്നു കാരണം എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകുമ്പോൾ എല്ലാ ആൾക്കാരും ഈ സെയിം റിവ്യൂ തന്നെ ആവുമല്ലോ കൊടുക്കണുണ്ടാവുക പിന്നെ ഐ ലാഷസ് എന്നു പറയുന്ന സമയത്ത് ഐ ലാഷസ് നമ്മൾ കണ്ണിൽ ഒട്ടിച്ചുവച്ചു ഒട്ടിച്ചുവച്ച സമയത്ത് പിന്നെ എടുക്കാൻ പറ്റണില്ല ഐ ലാഷസ് നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ എടുക്കാനെ പറ്റിയില്ല എത്ര ശരി ഞങ്ങള് എന്നിട്ട് വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചു ഈ ഇത് മുഖേന ആൾക്കാരെയൊക്കെ വിളിച്ചു ഇപ്പൊൾ എടുക്കാനെ പറ്റുന്നില്ല കുറേ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് എടുത്തത് തന്നെ അങ്ങനെ ഒരുമാതിരി ഒരു ഒരു അവസ്ഥ തന്നെയായിരുന്നു അന്ന് അത് വാങ്ങിച്ച ടൈമിൽ ഒരുപാട് കഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഞങ്ങൾ മാക്സിമം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാണ് ഞങ്ങൾ നേരിട്ട് കടയിൽ പോയിട്ട് ഞങ്ങളുടെ സ്കിൻ ടോണും മറ്റും നോക്കിയിട്ട് സെയിം കളർ ഒക്കെ നോക്കി വാങ്ങിക്കുകയാ ചെയ്യാറ് ഓൺലൈനിൽ വാങ്ങിക്കുന്നത് നിർത്തി ആ കമ്പനി ആ കമ്പനി പിന്നെ ആരും വാങ്ങിക്കാറില്ല കാരണം ഞങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പോൾ നോക്കണത് എന്താ ഈ ബ്രാൻഡഡ് കമ്പനികൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ മറ്റേ ലോക്കൽ കമ്പനി ഒക്കെ ഇപ്പോൾ ഞങ്ങൾ വിട്ടു കാരണം അതൊക്കെ നമ്മുടെ സ്കിൻ ടോൺ ഭയങ്കര ഡാമേജാ കാരണം അവർ ഏതൊക്കെ പ്രൊഡക്ട് കൊണ്ടാ ഇതൊക്കെ ഉണ്ടാക്കണത് എന്ന് നമുക്ക് പറയാൻ പറ്റിലല്ലോ അപ്പം ഞങ്ങൾ അതൊക്കെ വാങ്ങിക്കണത് നിർത്തി ഞങ്ങളിപ്പോൾ വാങ്ങിക്കണത് ഫുള്ള് ഹൈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ലിപ്സ്റ്റിക്കായലും എന്തായാലും നമ്മൾ നേരിട്ട് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാ ചെയ്യാറ് ഇപ്പോൾ